ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അപ്പം ആ ക്ലബ്ബിലെ ഞങ്ങളൊരു പത്തുനൂറ് പേരോളം അതിൽ അംഗങ്ങളായിരുന്നു അതിൽ യെമഹാ ആർ എക്സ് ഹണ്ട്രട് അങ്ങനെ റേസിംഗ് ബൈക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വര്ഷാവര്ഷങ്ങളിൽ അതിന്റെ ഒരു റേസിംഗ് നടത്തുമായിരുന്നു അത് വളരെ ഭയങ്കര സന്തോഷമാണ് ആ ഒരു റേസിംഗ് പരിപാടി നടത്തുന്നതും അ പ്രോഗ്രാമ് ലേക്ക് പങ്കെടുക്കുന്നതൊക്കെ ഭയങ്കര വളരെ സന്തോഷമായിരുന്നു അതിൻ്റെ അനുഭവം ഒക്കെ ഓര്ക്കുമ്പോൾ ഇപ്പം നമുക്ക് എന്താ വളരെ ആ ഒരു സമയമൊക്കെ വളരെ ഓര്മയിലിങ്ങനെ കിടക്കുന്ന സമയങ്ങളാണ് അതിൽ അനുഭവത്തിൽ ഞങ്ങളുടെ റേസിങ്ങിന് വന്ന ഒരു സമയത്ത് ഒരു വര്ഷത്തിൽ റേസിങ്ങിന് വന്ന സമയത്ത് ഒരു കോയമ്പത്തൂരുന്ന് വന്ന ഒരു ആള്ക്കൊരു ചെറിയൊരു അപകടമൊക്കെ ഉണ്ടായി അത് ഒരു ഭയങ്കര ഒരു ഇന്സിഡൻന്റ് ആയിരുന്നു ഞങ്ങളുടെ റേസിംഗ് ജീവിതത്തിലെ പിന്നെ ഞങ്ങൾ എല്ലാ വര്ഷങ്ങളിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോകാറുണ്ട് അതും ബൈക്കിലാണ് ബൈക്കിൽ നമ്മൾ പോവുക എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏത് വാഹനത്തിൽ പോയാലും ആ ഒരു അനുഭവം വളരെ മനോഹരമാണ് കാരണം നമുക്കങ്ങനെ ഇഷ്ടമുള്ള സ്ഥലങ്ങളില് നിർത്തി ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുത്തെ എന്താ കാറ്റുകളും മറ്റും ഒക്കെ തണുപ്പും കാലാവസ്ഥയെല്ലാം അനുഭവിക്കാന് പറ്റുന്നത് ബൈക്കിൽ പോകുമ്പോഴാണ് അപ്പം അങ്ങനെയൊരു അവസാനം ഞങ്ങൾ നടത്തിയ ഒരു റേസിങ് എന്ന് പറയുന്നത് എല്ലാ വര്ഷങ്ങളിലും റേസിംഗ് നടത്താറുണ്ട് അവസാനം നടത്തിയ റേസിംഗ് എന്ന് പറയുന്നതൊരു നമ്മൾ സ്ഥിരം സ്റ്റേഡിയത്തിൽ അല്ലായിരുന്നു അപ്പം അത് പുതിയൊരു സ്റ്റേഡിയം ഞങ്ങൾ കണ്ടെത്തി അത് ഒരുക്കാനൊക്കെ ജേ സി ബിയൊക്കെ വിളിച്ച് അത് റേസിംഗ് റേസിംഗ് റോഡൊക്കെ കണ്ടെത്തി അത് നിര്മ്മിച്ചു അങ്ങനെ അത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ റേസിംഗ് കണ്ടക്റ്റ് ചെയ്തതൊക്കെ അതുപോലെത്തന്നെ അത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളില്നിന്നുള്ള ആള്ക്കാർ പങ്കെടുത്തിരുന്നു അതുപോലെ അതിലൊരു ഏറ്റവും നല്ല ഒരു അനുഭവം എന്ന് പറയുന്നത് അതിലെ റേസിങ്ങിന് വന്ന ഒരാളുടെ ഒരു കൊച്ച് കുഞ്ഞുണ്ടായിരുന്നു അത് അതിന് ചെറിയൊരു ബൈക്കും ഒക്കെ ആയിട്ട് പുള്ളിയാണ് റേസിങ്ങിൽ ഇങ്ങനെ വളര്ത്തിയെടുത്തു കൊണ്ടിരിക്കുകയാണ് ആ പയ്യനെ അപ്പോൾ ആ അവന്റെയൊരു പ്രകടനം വളരെ ഇതായിരുന്നു റേസിങ്ങിലെ ആ അവനാ ബൈക്ക് ചെറിയൊര് ബൈക്കുകൊണ്ട് അത് ഓടിച്ചു അത് കാണികള്ക്കെല്ലാം ഭയങ്കര ആഹ്ളാദകരമായിരുന്നു പിന്നെ നാട്ടിലുള്ള എല്ലാവര്ക്കും ഒരു ആവേശമായിരുന്നു ഈ ബൈക്കിംഗ് റേസ് എന്ന് പറഞ്ഞാൽ നടത്തിയപ്പഴേ നമ്മുടെ നാടുകളിലൊന്നും ഇങ്ങനെ നടത്താറില്ലല്ലോ അതുകൊണ്ട് വിവിധ സ്ഥലങ്ങളില് നിന്നും ആള്ക്കാർ വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ഏകദേശം ഒര് പത്ത് നൂറ് കിലോമീറ്റർ അപ്പുറം വരെ ഞങ്ങൾ ഇതിന്റെ പോസ്റ്ററുകളൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കുകയും അതുപോലെത്തന്നെ നമുക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അത് എല്ലാവരിലും ഈ പ്രോഗ്രാം എത്തിക്കാനൊക്കെ ഇടയായി അതൊക്കെ വളരെ നല്ല ഒരു അനുഭവമായിട്ടാണ് ഞാന് ഇപ്പോൾ ഓര്ക്കുമ്പോള് തോന്നുന്നത് അതൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ റേസിങ്ങോ അതുപോലെ ഇത് കണ്ടക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്കുള്ള അവസരങ്ങൾ കുറച്ചെ കിട്ടുകയുള്ളൂ അത് പിന്നീട് നമുക്ക് ഈ അവസരങ്ങൾ ഓര്ക്കുമ്പോഴാണ് അതിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസിലാക്കുവാന് സാധിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഈ റേസിംഗ് പരിപാടി സംഘടിപ്പിച്ചതും അത് ഈ പരിപാടി പങ്കെടുത്തതൊക്കെ വളരെ നല്ല അനുഭവമായിരുന്നു ജീവിതത്തിൽ എന്നും മറക്കാന് പറ്റാത്ത ഓര്മകളായി ഇത് നിലനില്ക്കുകയും ചെയ്യുന്നുണ്ട്